പ്രാദേശിക പത്രങ്ങള് മനസിലാക്കിത്തന്നെ കണ്ടെത്തലുകളെന്നുവച്ചാൽ എല്ലാ വാർത്തകളും തന്നെ ഏത് പത്രത്തിലായാലും മലയാള മനോരമ മാതൃഭൂമി മംഗളം ഏത് പത്രമാണെങ്കിലും അതിൻ്റേതായ മൂല്യങ്ങളുണ്ട് നമുക്ക് അനുദിനം എല്ലാ ദിവസങ്ങളിലെയും വാർത്തകൾ അറിയാനും അതുപോലെതന്നെ ഓരോ ദിവസവും ഉണ്ടാകുന്ന പുതിയ പുതിയ കാര്യങ്ങളെകുറിച്ച് അറിയാനും പത്രങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ പത്രത്തില് പിന്നെ അന്നന്ന് ഓരോ ദിവസമുണ്ടാകുന്ന മരണങ്ങള് അപകടങ്ങള് അങ്ങനെ പല കാര്യങ്ങളും പത്രത്തിൽ വരുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസ പരമായിട്ടും ഉള്ള ഒഴിവുകള് അല്ലെങ്കില് പുതിയ എന്തൊക്കെ സംരംഭങ്ങള് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങള് നമുക്ക് മനസിലാക്കിതരാൻ പത്രം വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് അതുപോലെ പത്രങ്ങൾ എല്ലാദിവസവും തന്നെ മുടങ്ങാതെ വായിക്കുന്ന ശീലം മനുഷ്യരിൽ എല്ലാവരിലും ഉണ്ടാവുന്നത് നല്ലകാര്യമാണ് കാരണം അല്ലെങ്കിൽ പുറംലോകത്തിൽ നടക്കുന്ന ഓരോ ചതികള് അല്ലെങ്കില് ഒരോരുത്തർക്കുണ്ടായ ഓരോ അ അബദ്ധങ്ങൾ ശ്രദ്ധയില്ലാതുണ്ടായ അനുഭവങ്ങള് ഇപ്പോള് ഇപ്പോള് എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്ത് നടക്കുന്നത് അതുകൊണ്ടുതന്നെ പത്രം നമ്മള്ക്ക് എന്നും വായിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്